ആ ഹലോ ആ അതെയല്ലോ ആ ഓക്കെ സാർ ആ അതെ അതെ അതെ

ആ ആ ഓക്കെ ഓക്കെ ആ ഇത് ഏറ്റവും ലാഭകരമായൊരു ബിസിനസ്സാണ് സാർ ലോട്ടറി ആ നമുക്ക് എന്താ പറയുക ഇത് നമുക്കൊരു പത്ത് ശതമാനത്തോളം കമ്മീഷൻ കിട്ടും അല്ലാതെ അല്ലൊ ആ അതെ അതെ അതെ അല്ലാതെ ലോട്ടറി എടുത്ത് നമ്മുടെ കയ്യിൽത്തന്നെ ഇരുന്ന് അടിച്ചാൽപ്പോലും നമുക്ക് കേഷ് കിട്ടും അങ്ങനെയൊക്കെ ഒത്തിരി നല്ല ലാഭമാണ് സാർ ലോട്ടറി കച്ചവടം പലർക്കും അത് അറിയില്ല സാർ ആ പറ സാർ ആ കിട്ടും കിട്ടും ആ പത്ത് പതിനഞ്ചു ശതമാനത്തോളം കമ്മീഷനുണ്ട് അടിച്ചു കഴിഞ്ഞാൽ ഏജൻ്റായാൽപ്പോലും ആ വളരേ ആ പലർക്കും അതറിയില്ല സാർ ചെറിയ ജോലിയാണെങ്കിലും വളരേ ലാഭകരമായ ഒരു ബിസിനസ്സാണ് ലോട്ടറി കച്ചവടം സാർ ആ സാർ നമ്മുടെ അടുത്ത് വന്നാൽ മതി കൈരളി ഏജൻസീസ് വന്നാൽ മതി അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ബിസിനസ്സ് നടക്കുന്നത് സാർ ആ അതെ അതെ ഏറ്റവും കൂടുതൽ അറിയില്ല ഞങ്ങൾക്കൊരൂ കുറച്ചെ ഉള്ളൂ സാർ ആ ചെറിയ കമ്മീഷനേ എടുക്കത്തുള്ളു സാർ സാർ ഞങ്ങളേ സമീപിച്ചാൽ മതി നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സാറിന് പറഞ്ഞുതരാം നല്ല ബിസിനസ്സാണ് സാറേ ആ ഡെയ്ലി ഉണ്ട് സാർ ഡെയ്ലി ഉണ്ട് സർക്കാരിൻ്റെ ആണ് സാർ അതൊന്നും നമുക്കില്ല സാർ അതൊക്കെ നിർത്തി വളരേ വ്യാജന്മാരൊക്കെ ഇറങ്ങി അതൊക്കെ നിർത്തലാക്കി സാർ ഇതാണ് ഏറ്റവും കേരള സർക്കാരിൻ്റെ നല്ല സ്കീമാണ് സാർ ഇപ്പോൾ ഉള്ളത് അത് അല്ല ആ അല്ല അല്ല അല്ല അല്ല നമക്കതൊന്നുമില്ല സാർ അതെല്ലാം വ്യാജന്മാരാണ് സാർ ആ ആ അതൊന്നുമില്ല അതൊന്നുമില്ല സാർ അതൊന്നുമില്ല ഇപ്പം കേരള സർക്കാരിൻ്റെ നല്ല ലോട്ടറിയാണ് സാറുള്ളത് ആ അതെ അതെ അതെ സർ സാറിന് നേരെ നാട്ടിലെത്തിയോ അതോ ഉണ്ട് ആ സാർ സാർ വന്നു നമ്മളെ സമീപിച്ചാൽ മതി സർ കൈരളി ഏജൻസി ചോദിച്ചാൽ മതി ആർക്കും അറിയാം എല്ലാവർക്കും അറിയാവുന്ന ഓഫീസാണ് സാർ ആ ഇത് തിരുവനന്തപുരമാണ് ആ തിരുവനന്തപുരത്തുതന്നെ പട്ടത്ത് വന്നാൽമതി സാർ പട്ടത്ത് ആ അതെ അവിടെ വന്നാൽ മതി ഓക്കെ സാർ ഓക്കെ ഓക്കെ താങ്ക് യൂ ചിരി വരണ് പറയണോ